ഞങ്ങളുടെ പ്രദേശത്ത് ആരോഗ്യ പരീക്ഷ മേഖല എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ കനാൽസ് ഒക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കനാൽസ് ഒന്നും പ്രോപ്പർലി കവേർഡ് അല്ല അധികം വൃത്തിയായിട്ട് മെയിൻറെയിൻഡ് അല്ല അല്ല ഇനി വൃത്തിയായിട്ട് മെയിൻറെയിൻ ചെയ്യുകയാണെങ്കിലും ഈ ഒരു വേസ്റ്റ് എല്ലാം എടുത്ത് റോഡ് സൈഡിൽ തന്നെ ഡമ്പ് ചെയ്യുവാണ് ചെയ്യാറ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹെൽത്തിൻ്റെ ഒരു കൺസേൺ അവിടെ മാറുന്നില്ല സ്റ്റിൽ അതേ വേസ്റ്റ് എല്ലാം അവിടെ തന്നെ ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കുവാണ് അല്ലെങ്കിൽ ക്ലോഗ് ചെയ്ത് കിടക്കുവാണ് സോ ഒന്നും ഒരു ഇഷ്യൂ റിസോൾവിങ്ങ് അവിടെ ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ അവ കൊണ്ടുവരേണ്ട ഒരു പുരോഗതി എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ആ കൊണ്ടുവരേണ്ട ഒരു മാറ്റം പിന്നെ വല്ലാണ്ട് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വല്ലാണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന ഒരു അവസരത്തിൽ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യാൻ ആരോഗ്യമേഖലയിൽ ഒരു നടപടി കൊണ്ടുവരുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ മാറ്റങ്ങൾ വരേണ്ട മേഖല ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സെക്ഷൻ അതായത് റോഡുകൾ മിക്കതും ടാർ ചെയ്ത ചെയ്യാത്ത റോഡുകളാണ് കുറേയൊക്കെ ടാർ ചെയ്യാത്ത റോഡ് ആയതുകാരണം തന്നെ സഞ്ചരിക്കുമ്പോൾ അതിൻറേതായിട്ട് ഇത്രമാത്രം നമ്മൾ റോഡ് ടാക്സ് ഒക്കെ അടച്ച് ഒരു വണ്ടി ഇറക്കുമ്പോൾ പക്ഷേ റോഡുകളൊന്നും അത്രയും മെയിൻറെയിൻഡ് പോലും അല്ല അപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ് കൊണ്ടുവരേണ്ട ഒരു മേഖല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്പോർട്ട് മേഖലയാണ് കാരണം ഈ പറഞ്ഞത് പോലെ തന്നെ നമ്മൾ ഇത്രയും പതിനായിരവും ഇരുവതിനായിരം ഒരു ലക്ഷം വരെ റോഡ് ടാക്സ് കൊടുത്ത് വണ്ടി കൊണ്ടുപോവുമ്പോൾ എന്നിട്ട് അതേ വണ്ടിക്ക് കംപ്ലൈയ്ൻറ് ആവുക ഇഷ്ടംപോലെ ആക്സിഡൻറുകൾ ഉണ്ടാവുക അപ്പോൾ ഇതിനൊക്കെ കാരണം ഈ റോഡിൽ വരുന്ന കുഴികളും കാര്യങ്ങളാണ് അത് വൃത്തിയായിട്ട് ടാർ ചെയ്യാണ്ടെ ഇരിക്കുക വൃത്തിയായിട്ട് മെയിൻറെയിൻ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ് കൊണ്ടുവരേണ്ട ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ട്രാൻസ്പോർട്ട് മേഖല എന്ന് പറയും